എൻ്റെ പ്രദേശത്ത് ഞാൻ അറിയാവുന്ന രാഷ്ട്രീയ ഒരു പാർട്ടി നേതാവാണ് ആ വ്യക്തിയുടെ പേരാണ് ദേവസ്സിക്കുട്ടി ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു എഴുപത്തി അഞ്ച് വയസ്സോളമുണ്ട് ആ പാർട്ടിയാണ് ആദ്യകാലത്ത് ഞാൻ രണ്ടായിരത്തി പത്തിൽ പഞ്ചായത്ത് മെമ്പർ ആകാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല നിർദ്ദേശങ്ങൾ തന്ന ഒരു വ്യക്തിയാണ് ഒരു രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പാർട്ടി എങ്ങനെ ഇരിക്കണമെന്നും ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ആയിരിക്കണമെന്നും എനിക്ക് ഒത്തിരിയേറെ പഠിപ്പിച്ച് തന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിയെ ഞാൻ ഇപ്പം ഓർമ്മിക്കുകയാണ് ആ വ്യക്തിയെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ രാഷ്ട്രീയ രംഗത്ത് എനിക്ക് ഒരു നിർദ്ദേശകനായി എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി പത്തിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായി ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ എന്നോടൊപ്പം അന്ന് പ്രവർത്തിക്കാൻ എൻ്റെ വാർഡിൽ ഓരോ വ്യക്തികളേയും കണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി എന്നോടൊപ്പം ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ് അത് ആ വ്യക്തി ആ വ്യക്തിയെ എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം എൻ്റെ ഔദ്യോഗിക എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്ന് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇന്ന് ഇരുപത്തി നാല് വരെ പഞ്ചായത്ത് മെമ്പറായിട്ടും പ്രസിഡൻ്റായിട്ടും സ്റ്റാൻഡിങ്ങ് കമ്മറ്റി ചെയർപേഴ്സണൊക്കെ ആയിട്ട് എനിക്ക് ഇന്ന് നിൽക്കാൻ സാധിക്കുന്നു എങ്കിൽ അവരുടെയക്കെ ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒത്തിരി പിന്തുണയോട് കൂടിയാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് നിന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ കുഞ്ഞു നാൾ മുതൽ ഞാൻ കേട്ട ഒരു പാർട്ടി തന്നെ ഉറച്ച് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ആ ആ വിശ്വാസത്തിൽ മോളിലാണ് ഞാൻ ഇന്നും എൻ്റെ പാർട്ടിയിൽ വിശ്വസിച്ച് കൊണ്ട് അതായത് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് അന്ന് മുതൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ കാരി എന്ന രീതിയിൽ അവരോടൊപ്പം എൻ്റെ എല്ലാ നേതാക്കൻമാരോടും ഒപ്പം ഒരു നേതാവ് മാത്രമല്ല എനിക്ക് പല നേതാക്കന്മാരുണ്ട് അവരുടെയൊക്കെ വാക്കുകളുമൊക്കെ വളരെ അനുസരണയോടും എക്ക കൂടിയാണ് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചത് ഇന്ന് ഈ നിലയിൽ ഞാൻ നിൽക്കണമെങ്കിൽ ഞാൻ എൻ്റെ പാർട്ടിയിലെ നേതാക്കളേയും അവരോടൊപ്പം നിന്ന അനേകരെ ഉമ്മൻചാണ്ടി സാർ അടക്കം എനിക്ക് ഒത്തിരിയേറെ നല്ല നല്ല ഉപദേശങ്ങൾ തന്ന നല്ല നേതാവ് ഡി സി സി പ്രസിഡൻ്റ് അതുപോലെ തന്നെ പിന്നെ എം പി എം എൽ എ ഇങ്ങനെയുള്ള നല്ല നേതാക്കന്മാരുടെ ഒത്തിരി സ്നേഹം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ നിലയിൽ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് എനിക്ക് നിലകൊള്ളാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഞാൻ എടുത്ത് പറയേണ്ട ഒരു നേതാവാണ് മുൻ എം എൽ എ സിഎഫ് സാറ് സാറിൻ്റെ ഒത്തിരി ഒരു അദ്ധ്യാപകൻ കൂടി ആയത് കൊണ്ട് തന്നെ സാറിൻ്റെ ഒത്തിരി നല്ല നല്ല നിർദ്ദേശങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ വഴിയിൽ കൂടി അങ്ങേരുടെ നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ച് കൊണ്ടും എൻ്റെ പാർട്ടിയിൽ എന്നെ നയിച്ച ഒത്തിരി അനേകം നേതാക്കൻമാരുടെ അവരുടെയൊക്കെ ഉപദേശങ്ങളാണ് എന്നെ മുന്നോട്ട് ഇത്രയേറെ ഒരു നല്ല ഒരു രാഷ്ട്രീയ പഞ്ചായത്ത് മെമ്പറാക്കി തീർത്തിരിക്കുന്നത് എൻ്റെ വാർഡിലാണങ്കിലും എനിക്ക് ഒത്തിരി ഉപദേശകരുണ്ട് എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന എൻ്റെ ജനങ്ങളുടെ ഇടയിലാണ് ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് മൂന്ന് ട്ടയം ഒരു വാർഡിൽ നിന്നും ജയിച്ചു എന്നുള്ളത് തന്നെ എനിക്ക് വലിയ ഒരു അഭിമാനകരമായി എനിക്ക് തോന്നുകയാണ് ഒരു നല്ല പൗരൻ എന്ന നിലയിൽ എന്നെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുള്ള ഇത്രയും നേതാക്കൻമാരെ ഈ വേദിയിൽ ഞാൻ അനുസ്മരിക്കുകയാണ്